പഴയ തലമുറയും പുതിയ തലമുറയും അതിൻ്റെ ഇടയിലുള്ള തലമുറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് രണ്ട് തലമുറയും കിട്ടീട്ടുണ്ട് അതായത് പഴയ തലമുറയിൻ്റെ എൻഡിങ്ങും പുതിയ തലമുറയുടെ സ്റ്റാർട്ടിങ്ങും ആ രണ്ടിലുള്ള രീതിയിലാണ് ഉള്ളത് വളരെ വ്യത്യാസമായിട്ടുള്ള വിധത്തിൽ ഇത് തന്നെയാണ് രണ്ട് തലമുറയിൽ നിന്ന് കാണാൻ കഴിയുന്നത് ജീവിത ശൈലി തന്നെയാണ് രണ്ടിലും വ്യത്യാസായിട്ട് കാണുന്നത് പഴയ തലമുറയിലുള്ള ഫുഡിങ് ഫുഡ് ഇതിൻ്റെ നേചേഴ്സ് അങ്ങനത്തെ എല്ലാം വ്യത്യാസമായി തന്നെയാണ് ഇപ്പത്തെ തലമുറയിലുള്ളത് ഇപ്പത്ത തലമുറയില് വരുന്ന പഠിക്കുന്ന കുട്ടികളാണെൽ തന്നെ ആ രീതിയിലുള്ള മാറ്റങ്ങള് രീതിയിൽ തന്നെയുണ്ട് അവര് തമ്മിലുള്ള സാമ്യതകൾന്ന് പറഞ്ഞാൽ ഡ്രസിങ്ങിൽ തന്നെ വളരെ വ്യത്യാസുള്ളതുണ്ട് കാഴ്ചപ്പാട് ഡ്രസിങ്ങിലെ കാഴ്ചപ്പാട് പഴയ ആൾക്കാരുടെ കാഴ്ചപ്പാടും പുതിയ ആൾക്കാരുടെ കാഴ്ചപ്പാടും രണ്ടും രണ്ടായിട്ടാണ് ഉള്ളത് ഡ്രസ്സിങ്ങില് അതായത് സ്ത്രീകളുടെയും പുരുഷൻമാരുടെയും ഡ്രസിങ്ങിലെ വ്യത്യാസങ്ങൾ വളരെ വ്യത്യാസായിട്ടാണുള്ളത് പഴയ തലമുറയിനെ അപേക്ഷിച്ച് വളരെ വ്യത്യാസ രീതിയിൽ തന്നെയാണുള്ളത്